ഇപ്പോൾ നമ്മുടെ ഇന്ത്യയില് കാണപ്പെടുന്ന നാലു ടൈപ്പ് ഋതുക്കളാണ് വേനല് മഴ കാറ്റ് മഞ്ഞ് നമ്മളെ എനിക്കതിലും ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം എന്നു പറയുന്നത് വേനൽക്കാലം തന്നെയാണ് അതില് മെയിനായിട്ടുള്ള റീസൺ എന്നു പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പുറത്തിറങ്ങി നല്ല അതായത് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊരു സീസൺ എന്നു പറയുന്നത് നമുക്ക് വേനൽക്കാലം തന്നെയായിരിക്കും ചൂടുണ്ടാവും സ്വാഭാവികമായിട്ടും പകലൊരു പത്ത് മണി മുതല് നാലു മണിവരെയൊക്കെ നല്ല ചൂടായിരിക്കും എന്നാക്കൂടെ നമുക്ക് രാവിലെയായാലും വൈന്നേരായാലും വേറെ ഇതൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് നടക്കാം പിന്നെ ഈ വേനൽക്കാലത്താണ് നല്ല കായ് വൃക്ഷങ്ങളിപ്പോൾ ചക്ക മാങ്ങ പേരക്ക കൊയ്യാ മറ്റേ കൊയ്യാക്ക അങ്ങനെത്തെ നല്ല പിന്നെ ചെരണ്ടിപ്പഴം അങ്ങനെയുള്ള നല്ല നല്ല ഫല വൃക്ഷങ്ങള് ആ സമയത്താണ് വേനൽക്കാലത്താണ് പൊതുവെ ഉണ്ടാവാറ് അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ നമുക്കിപ്പൊ ഇതായത് ഈ നാടൻ പ്രദേശങ്ങളൊക്കെയാണ് പറയുമ്പോ ഈ മരണങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അതിൻ്റെ ലഭ്യത കൂടുതലായിരിക്കും പിന്നെ നമുക്ക് കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റണ സമയം അതാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ ഈ അമ്മമാരെ സംബന്ധിച്ച് നോക്കാണ് പറയുമ്പോൾ നമുക്ക് അവര് ഈ ഡ്രെസ്സൊക്കെ വാഷ് ചെയ്യണത് തിരുമ്പാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത സമയം ആണ് പിന്നെ എന്തുകൊണ്ടും നമുക്ക് അനുയോജ്യമായൊരു കാലാവസ്ഥ തന്നെയാണ് വേനൽക്കാലം